കാലാവസ്ഥയും സന്ദർഭവും പരിഗണിക്കുമ്പോൾ സഞ്ചാരികൾക്ക് വളരെ അനുയോജ്യമായൊരു സ്ഥലമാണ് എൻ്റെ നാട് എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ പ്രദേശം കരുവാറ്റയിലെ പുത്തനാറിന് തീരത്ത് കാരമുട്ടെന്ന് പറയുന്നൊര് ചെറിയ ദ്വീപിൽ നിന്ന് ദ്വീപ് അതിനോടാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ പത്ത് വർഷമായി നാട്ടിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പുത്തനാറും ഞങ്ങളുടെ ഈ ഭൂപ്രകൃതിയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായൊരു പ്രദേശമാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് അറിയപ്പെടുന്ന ആലപ്പുഴ കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ലോകത്തെമ്പാടും ഏറ്റവും ടൂറിസത്തിന് ഏറ്റവും പ്രശസ്തി കേട്ടൊരു സ്ഥലമാണ് അതിൽ തന്നെ എൻ്റെ നാട്ടിലും അതിനോട് ഏറെ സാഹചര്യവും സന്ദർഭവും ഉള്ളതായിട്ടാണ് ഞാൻ കരുതുന്നത് വള്ളംകളിയും അതുപോലെ വള്ളത്തെ ബോട്ട് യാത്രയും കെട്ടുവള്ളത്തിലുള്ള യാത്രകളും മറ്റും അതുപോലെ അത് കൂടാതെ ചരിത്രപ്രസിമായ പ്രസിദ്ധമായ ഒരുപാട് പ്രദേശങ്ങൾ ചേരുന്നതാണ് ഞങ്ങളുടെ നാട് എൻ്റെ നാട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രാ സൗകര്യം തന്നെ വള്ളത്തിലുള്ള യാത്രയാണ് അത് പുതിയതായി നാടിൽ വരുന്നവർക്ക് ഒരു പുത്തൻ അനുഭവമാണ് ആലപ്പുഴയിൽ തന്നെ പല പ്രദേശങ്ങൾ പുത്തനാറിൽ ചെന്ന് ചേരുന്നത് എന്നാ പമ്പയുടെ കൈവഴി ആയിട്ട് പുത്തനാറ് ചെന്ന് ചേരുന്നത് എന്നാ തോട്ടപ്പള്ളിയിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ അത് തോട്ടപ്പള്ളി പൊഴിയിൽ ചെന്ന് കടലിൽ ചെന്ന് ചേരുന്നതാണ് അപ്പോൾ തോട്ടപ്പള്ളി പൊഴി തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ഇതൊക്കെ കാഴ്ച്ചയ്ക്ക് ബീച്ചും കാര്യങ്ങളും കാഴ്ച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യപ്രദമായൊരു സ്ഥലവും സാഹചര്യവുമാണ് അതുമാത്രമല്ല അവിടുന്ന് കുമാരകോടി കുമാരനാശാൻ സ്മാരക മന്ദിരം അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രശസ്തമായതാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷാ സ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം അതുകൂടാതെ തകഴി സ്മാരക മന്ദിരവും ഇതിനോട് ചുറ്റും തന്നെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് പ്രശസ്തമായ എടത്തുവാ പള്ളി അതുപോലെ തന്നെ മറ്റ് ഒരു വളരെയധികം വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ രീതിയിൽ സാഹചര്യവും സന്ദർഭവും ഒരുക്കുന്ന ഒരുപാട് സാ കാര്യങ്ങൾ കാഴ്ചകൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതിനുവേണ്ടി യാത്രാസൗകര്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്രദമായ രീതി വള്ളത്തിലാണ് വള്ളവും ബോട്ടും ബോട്ട് റെയ്സിനും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ കാനോയും കയാക്കും ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്കും ഒക്കെ ഈ നാട്ടിൽ ഒരുപാട് സൗകര്യം ഉണ്ട് ഇവിടെ ഒരുപാട് പേർ വരിക വരികയും പോവുകയും വിനോദസഞ്ചാരികൾ ഇതിലേ കടന്നുപോകുന്നതൊക്കെ ഞങ്ങൾ കാണാറുണ്ട് അനുയോജ്യമായ സന്ദർഭം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അതിന് അനുയോജ്യമായൊരു സമയം ഓണക്കാലം ആണ് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആവുമ്പം കാലാവസ്ഥയും അനുയോജ്യമാണ് അതുപോലെ തന്നെ വൺ ഓണത്തോട് അനുബന്ധിച്ച് വള്ളംകളി നടക്കാറുണ്ട് അതുപോലെ കരുവാറ്റ വള്ളംകളി നടക്കാറുണ്ട് അതുപോലെ തന്നെ നെഹ്റു ട്രോഫി വള്ളംകളിയും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച്ച നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി തന്നെ അത് കാണാൻ വേണ്ടി തന്നെ ആലപ്പുഴയിൽ എത്തുന്ന ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ രീതിയിൾ ഗവൺമെൻറും ടൂറിസം മേഖലയും നല്ലൊരു കാഴ്ച്ചയൊരുക്കുന്നതാണ് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കാറുണ്ട് മുൻകൂട്ടി തന്നെ അതിന് വേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഗവൺമെൻറ് ഒരുക്കുകയും അതിനുവേണ്ട കമ്മിറ്റികളും അതിന് വേണ്ട അതിനുവേണ്ടി നിൽക്കാൻ ഒരുപാട് ആൾക്കാരും അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ട് അങ്ങനെ ഒരിക്കലും ആർക്കും വിനോദസഞ്ചാരികൾ ടൂറിസത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന് താൽപ്പര്യം കൊടുക്കുന്ന വിദേശികളായ ഒരുപാട് ആൾക്കാർ വന്നുപോവുകയും ചെയ്യുന്ന സമയമാണ് ആ സമയം ഞാൻ ഏറ്റവും കൂടുതൾ ആ സമയമാണ് അതിന് സജസ് ഞാൻ ഞാൻ നിഷ്കർഷിക്കുന്നൊരു സമയം ആ സമയമാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിനടുത്ത് ഞങ്ങളുടെ നാടിന് അടുത്ത് തന്നെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും അതിനടുത്ത് കരുമാടിക്കുട്ടൻ ക്ഷേത്രവും ഉണ്ട് അതായത് കരുമാടി എന്ന പ്രദേശത്ത് കരുമാടിക്കുട്ടൻ അമ്പലം ഉണ്ട് അതായത് കരുമാടിക്കുട്ടൻ ക്ഷേത്രം അതും വിനോദസഞ്ചാരികൾ ഒരുപാട് വന്നുപോകുന്നൊരു സ്ഥലമാണ് അതുപോലെ പറഞ്ഞാലൊട്ട് തീരാത്തതിന് മാത്രം ഒരുപാട് വിനോദസഞ്ചാര സാധ്യതകല ഉള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ എൻ്റെ നാടും അതിനൊട്ടുക്കേയും ഏറെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉള്ളൊരു സാഹചര്യ ഒരു നാടാണ് എൻറേത് അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ കൂടുതലായിട്ട് ഞങ്ങളുടെ യാത്രാ സൗകര്യം എന്ന് ഉദ്ദേശിക്കുന്നത് വള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ജങ്കാറാ സർവീസുകളിലൂടെ മാത്രമേ നമുക്ക് ഈ യാത്ര സാധ്യമാവുകയുള്ളൂ അത് പുതിയ ടീനാടിനി വള്ളവും ഈ റോഡ് മാർഗ്ഗം മാത്രം സഞ്ചരിച്ച് ശീലിച്ച ആൾക്കാർക്ക് ഈ സാഹചര്യം ഈയൊരു യാത്രാ സൗകര്യം വളരെ അവർക്ക് മനസ്സിന് കുളിർമ നൽകുന്നതും പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ അന്തരീക്ഷവും ഒക്കെ ഒരുപാട് കണ്ണിന് കൗതുകം നൽകുന്നതും കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്നതുമായൊരു വലിയ കാഴ്ച്ചയാണ്